മലയാളഭാഷയുടെ ചരിത്രം എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളൊന്നുമില്ല എങ്കിലും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായ അറിവനുസരിച്ച് തുഞ്ചത്തെഴുത്തച്ഛൻ ആണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് മലയാള ഭാഷയിൽ കാര്യമായ സംഭാവനകൾ നൽകിയത് സംഭാവനകൾ എന്ന അർത്ഥത്തിൽ മലയാള ഭാഷയിൽ കൂടുതൽ കൃതികൾ രചിക്കുകയും കേരളത്തെകുറിച്ചുള്ള കൂടുതൽ കൃതികളിലൂടെ തന്നെത്തന്നെ മലയാളം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയുണ്ടായി ധർമ്മൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഒരു ജർമ്മൻ വ്യക്തിയാണ് ഇതിനുള്ള പിന്നെ പിന്നെ ഡിക്ഷണറി പോലെയുള്ള വസ്തുതകൾ ഉണ്ടാക്കിയതെന്നാണ് എൻ്റെ ഒരു അറിവ് എങ്കിലും മലയാള ഭാഷയുടെ പരിണാമം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് കേരളത്തിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യുമ്പോൾ പല ഭാഷകൾ പല സംസ്കാര രീതികളും കൂടിച്ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില വാക്കുകൾ മലയാള ഭാഷയിലേക്ക് കടന്ന് കൂടിയിട്ടുണ്ട് കൃത്യമായി ഏത് ജില്ലയിലാണ് നല്ല മലയാളം ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കാലങ്ങളായി ഒരു സംവാദം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തെന്ന് ചിലർ പറയുന്നു ചിലർ പറയും തൃശ്ശൂർ അവരവരുടെ ജില്ലകളിലേക്കാണ് കൂടുതൽ ആളുകളും ഇതിന് പൂർണ്ണമായും അംഗീകരിക്കുന്നത് എങ്കിൽത്തന്നെ മലയാള ഭാഷ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭാഷ എന്നതാണെനിക്ക് പറയാനുള്ളത് മലയാളത്തിലേക്ക് കൂടുതൽ മലയാള കവികൾ അതിനെ കുറിച്ച് വാഴ്ത്തി പാടിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും